ആ പറയൂ അതെയോ ആ ആ ആ ഓക്കേ നെന്മാറ വല്ലങ്ങി വേല പറഞ്ഞാൽ കേരളത്തിലെ ഫേമസ് വേല ആണ് നമ്മുടെ ഏറ്റവും ഫേമസ് വേല ആണ് നെന്മാറ വല്ലങ്ങി വേല അത് രണ്ട് മെയിൻ ദേശങ്ങളാണ് ഉള്ളത് നെന്മാറ ദേശവും വല്ലങ്ങി ദേശവും അതിൽ മെയിനായിട്ട് അട്ട്രാക്ഷൻ അല്ലെങ്കിൽ മെയിൻ സാധനം പറയണത് വെടിക്കെട്ട് ആണ് രണ്ട് നേരവും ഉണ്ടാവും വെടിക്കെട്ട് വൈകുന്നേരവും ഉണ്ടാവും പുലർച്ചെ ഉണ്ടാവും ഇത് നമ്മുടെ മലയാള മാസം മലയാള മാസം എന്താണ് ആ മൂന്ന് നാല് ദിവസത്തെ പരിപാടി ആണ് അതിൽ നമ്മളെ എല്ലാ മലയാള മാസം ഇരുപതാം തീയ്യതി ആണ് പൂരം സ്റ്റാർട്ട് ചെയ്യുക ഏകദേശം ഏപ്രിൽ ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ച്ച ഒക്കെ ആയിട്ട് എല്ലാ കൊല്ലവും ആ സമയത്താണ് വരാറ്

ആദ്യത്തെ ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊടിയേറ്റം ആണ് നമ്മുടെ കാൽ നാട്ടൽ പരിപാടി ഉണ്ട് അമ്പലത്തിൽ അപ്പോൾ പൂജ കഴിഞ്ഞു വന്നിട്ട് അമ്പലത്തിൽ ഇപ്പോൾ നെല്ലികുളങ്ങര ഭഗവതി അമ്പലത്തിൽ വച്ചിട്ട് പൂത പൂജ ഒക്കെ കഴിഞ്ഞ് നേരെ വന്ന് നമ്മളെ എല്ലാ ദേശക്കാരും ഉണ്ട് രണ്ട് ദേശക്കാർ വരും അവർ വന്നിട്ട് കാല് നാട്ടും അതാണ് നമ്മൾ സാധാരണ അതിൻ്റെ ഒരു ചെയ്യാറ് എന്നിട്ട് അപ്പോൾ ആന ഉണ്ടാവും ഒരു ചെറിയ മേളം പഞ്ചവാദ്യം ഉണ്ടാവും പിന്നെ അങ്ങനത്തെ

ആ ആ ഇഷ്ടംപോലെ ഉണ്ടാവും ആനകളൊക്കെ രണ്ട് എങ്ങനെ ആനകൾ എന്നു പറയുമ്പോൾ ഒരു രണ്ടു ദേശക്കാരും ആയിട്ടാണ് പിന്നെ ചെറിയ ദേശങ്ങൾ രണ്ടു മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഓരോ ദേശക്കാർക്കും അവരവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ഇപ്പോൾ നെമ്മാറ ഓരോ പ്രാവിശ്യം ഇരുപത്തി ഒന്ന് ആന ആയിരുന്നു അതുപോലെ വല്ലെങ്ങി ഇരുപത്തി മൂന്നോ അങ്ങനെ എന്തോ ആയിരന്നു പിന്നെ ആ പിന്നെ ചെറിയ ചെറിയ ദേശക്കാർ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ അങ്ങനെ വച്ചിട്ട് അവരും വരാറുണ്ട് കേരളത്തിലെ തന്നെ നമ്പർ വൺ വെടികെട്ടാണ് നെമ്മാറ വെടിക്കെട്ട് എന്നു പറയണത് നമുക്ക് നെന്മാറയ്ക്ക് അല്ലെങ്കിൽ നെമ്മാറ വേലയ്ക്ക് പോയിട്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നെൽപ്പാടങ്ങൾ മുഴുവൻ അമ്പലത്തിൻ്റെ ഭാഗം ആയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് എത്ര ബാക്കി ദേശകാരുടെ അടുത്തു നിന്നോ അല്ലെങ്കിൽ നാട്ടുകാരുടെ അടുത്തു നിന്നോ യാതൊരു പ്രശ്നവും വരില്ല നമുക്കു എത്ര വേണമെങ്കിലും പൊട്ടിക്കാം ഇരുന്ന് നമ്മൾ ഇതിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ആ അത് ഏകദേശം ഒരു ആറര വൈകുന്നേരത്തെ ആണെങ്കിൽ വൈകുന്നേരം ഒര് ആറരയോടുകൂടി പൊട്ടിക്കും മഴ ഒക്കെ ആണെങ്കിൽ കുറച്ചു നേരത്തെ ആക്കും പുലർച്ചയ്ക്ക് ഉള്ളത് ഒരു മൂന്നര നാല് മണി ആ സമയത്താണ് നമ്മൾ പൊട്ടിക്കുക ആൾക്കാർ ഇപ്പം നമ്മൾ എല്ലാ പൂരം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും മറ്റേ ചെണ്ട മേളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആനച്ചമയം ഉണ്ടാവും അതുപോലെ പാണ്ടിമേളം എല്ലാം ഉണ്ടാവും പകൽ ആൾക്കാർ ഉണ്ടാവും പുറത്ത് പുറമേ നിന്നു വരുന്ന ആൾക്കാരൊക്കെ വൈകുന്നേരത്തെ വെടിക്കെട്ടു കാണാൻ നിൽക്കും അധികവും ദേശകാർ അധികവും നിൽക്കണത് രാത്രി വെടിക്കെട്ട് കാണാനും രാത്രി പൂരം കാണാനും രാത്രി പൂരവും അതായത് അന്ന് രാത്രി ഉറക്കം ഇല്ല നല്ല പരിപാടി ആയിരിക്കും അമ്പലത്തിൽ പാട്ടും ഗാനമേളയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ പരിപാടി ഉണ്ടാവും അപ്പോൾ അന്ന് ഏകദേശം ആ എല്ലാ ഈക്വൽ ആണ് എന്നാലും പുറത്തുനിന്ന് ആൾക്കാർ അധികം വൈകുന്നേരത്തെ വെടിക്കെട്ടിന് വന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ചു നേരം നിന്നിട്ട് പോവാറാണ് പതിവ് കാരണം എല്ലാവരും ദൂരത്തിന്നടക്കം ഇപ്പോൾ കോഴിക്കോട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപോലെ കോഴിക്കോട് കാസർഗോഡ് തിരുവനന്തപുരം എല്ലായിടത്തുനിന്നും വെടിക്കെട്ട് കാണാൻ ആൾക്കാർ വാരാറുണ്ട് എങ്ങനെ അതെ അതെ ഞാൻ ഇവിടെ തന്നെ ആണ് ഞാൻ ആ കുറേ കാലം കളക്ഷൻ കമ്മിറ്റിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കമ്മിറ്റിയിൽ നിന്നൊക്കെ ഒഴിവായി ഇപ്പോഴെന്തായാലും വേലയെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും അവിടെത്തന്നെ ഉണ്ടാവും ഒരാഴ്ച മുമ്പ് അവിടെ തന്നെ ഉണ്ടാവും എല്ലാ കാര്യത്തിനും അവിടെ പറ എടുക്കാനും കാര്യങ്ങളും എല്ലാത്തിനും നമ്മൾ ഉണ്ടാവും ആ എന്തയാലും പൂരത്തിന് വരൂ ശരി ശരി